ഹലോ ആ അതെ ബനാറസ് സാരി ഓക്കെ കല്യാണത്തില്ലേല്ലെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ബനാറസ് സാരി മതിയോ അതോ സാരീൻ്റെ മോഡൽ മോഡൽ വേറെയുണ്ട് പട്ടിൻ്റെ കോട്ടനുണ്ട് അങ്ങനെ വേറെ

ഇല്ല ഒരാറ് സാരിക്കൊരു ഇരുപത്തി മൂവായിരം രൂപ വരും

അത് നിങ്ങൾ ഞങ്ങളെ സ്ഥിരം കസ്റ്റമറല്ലെ അപ്പോൾ അതിനായിട്ടുള്ള ഡിസ്കൗണ്ട് ഞങ്ങൾ ഒരു സാരിമ്മെ ഇത്രെന്ന് വെച്ച് കുറക്കും അപ്പം നമുക്കൊരു ഇരുപത്തൊന്നായിരത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം

ആ കാഞ്ചിപുരവുണ്ട് കോട്ടൻ്റെ ഉണ്ട് നിങ്ങൾക്ക് കളറെങ്ങനെയാണ്

ക്രീമും മെറൂണും കൂടിയ കളറുണ്ട് ആ കാഞ്ചിപുരത്തിനൊരു ആറെണ്ണത്തിന് നോക്കുവാണെങ്കിൽ ഒരു പതിനയ്യായിരം ഒക്കെ വരും റേറ്റ് ആ ആ അതെ നിങ്ങൾ ഓർഡറ് ചെയ്തൊരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളാണ് സാധനം എത്തിക്കും പതിനഞ്ച് ദിവസം എടുക്കും ഓൺലൈൻ ഡെലിവറി വേണമെങ്കിൽ ഞങ്ങൾ ചെയ്ത് തരാം ആ അങ്ങനുള്ള സംവിധാനമുണ്ട് ഓ ഓക്കെ ഷുവറാണ് തരും ഉറപ്പാണ് ആ ശരീന്നാ ആ ശരി